എനിക്കൊരു കാർ വേണമായിരുന്നു അവിടെ ഏതൊക്കെ കാറുണ്ട്

എനിക്ക് കുറച്ചു കുറഞ്ഞതുമതി ആണോ ആ ആ അപ്പോൾ ഫസ്റ്റത്തെ പേയ്മെൻ്റ് എത്ര വരും ആ പിന്നെ ആ ആ ഇ എം ഐ ഉണ്ടോ ആണോ ആണോ ആ ആ അപ്പോൾ ആണോ ആ ആ അപ്പോൾ മന്ത്ലി ഓ അല്ല അല്ല അല്ല പുതിയതു തന്നെ എടുക്കാനാണ് ആ ആ ആ ഡെയ്ലി യൂസിനാണ് അപ്പോൾ ഡെയ്ലി യൂസാകുമ്പോൾ അത്ര ഇതിൻ്റെ വേണ്ടല്ലോ അത്ര റേറ്റുള്ള വേണ്ട

ഏയ് ഇല്ലില്ല അത്രയൊന്നും ഇല്ല ഒരു മൂന്നാളേ ഉള്ളൂ ആ ആ ആ ആ ആ ആ അപ്പോൾ ഒന്നു വന്നു നോക്കാൻ പറ്റുമോ ആണോ ആ ആ ഇല്ലാ ഹസ്ബൻ്റ് ഉണ്ടാവും

കളറ് വന്നിട്ട്

ആ ഹലോ ഹലോ ആ കളർ വന്നിട്ട് നോക്കാമെന്നാണ് ഉള്ളത് കളറങ്ങനെ നോക്കി വച്ചിട്ടില്ല

ആ ആ ആ ഓക്കെ ആ നാളെ നോക്കാം വന്നിട്ട് നോക്കാം ആ ആ